പുതിയ ജോലിക്കായി പോയ പ്രവേശിച്ച സമയത്ത് എനിക്ക് ഒരുപാട് വെല്ലുവിളികള് നേരിടേണ്ടി വന്നു ജോലിയില് ജോലി സമയത്ത് ഉണ്ടായിരുന്ന ആളുകളായാലും ജോലിയിലെ വര്ക്ക് പ്രെഷര് ആയാലുമെല്ലാം സമ്മര്ദ്ദം ആ സമ്മര്ദ്ദങ്ങളെല്ലാം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഞാന് വളരെ കഷ്ടപ്പെട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് പല കൂടുതൽ എത്ര കഷ്ടപ്പെട്ടാലും ഒരു തരത്തിലൂമെനിക്ക് ചെയ് ജോലി ചെയ്യാന് പറ്റിയിരുന്നില്ല അത്രത്തോളം സമ്മര്ദ്ദമായിരുന്നു എട്ടുമണിക്കൂ എട്ടുമണിക്കൂറോളം ജോലിയാരുന്നു വലിയ ഒരു കമ്പനിയില് ഞാൻ രാപ്പകളോളം ഞാന് ജോലി ചെയ്തിരുന്നു ഞങ്ങളുടെ ഒരു മേലധികാരി വളരെ വളരെ ക്ഷോഭിച്ചാണ് ക്ഷോഭിച്ചാണ് ഞങ്ങളോട് പെരുമാറിയിരുന്നത് എല്ലാത്തിനും ഞങ്ങളെ വഴക്ക് പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ പ്രത്യേകിച്ച് എന്നെ ഒട്ടും സപ്പോര്ട്ട് ചെയ്യില്ലാരുന്നു വര്ക്ക് പ്രെഷര് എല്ലാം വളരെ അധികമായിരുന്നു ഞാന് വളരെ കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത് ശമ്പളം അടക്കം വളരെ കുറവായിരുന്നു ഈ ജോലി സമ്മര്ദ്ദത്തിലും ഞാന് ആത്മാര്ത്ഥമായി പണിയെടുത്തു ഒരു ദിവസം എനിക്ക് ഒരു പുതിയ ചുമതല ഏല്ക്കേണ്ടി വന്നു ഈ ചുമതലയൊക്കെയായി എനിക്ക് ഒരു പരീക്ഷ അറ്റന്ഡ് ചെയ്യണമായിരുന്നു ഈ പരീക്ഷക്കായി ഞാന് ഈ പരീക്ഷക്ക് പഠിക്കാനും ഇതില് അറ്റന്ഡ് ചെയ്യാനും ജോലി നേടാനും ഞാന് ലീവ് ചോദിച്ചിരുന്നു എന്നാല് ആ ലീവ് അവര് അനുവദിച്ചു തന്നില്ല മാത്രമല്ല എക്സാമിന് ജയിച്ചില്ലേൽ എക്സാമിന് അവർ പറഞ്ഞ മാര്ക്ക് ലഭിച്ചില്ലെങ്കില് അത് ഈ ചുമതലയില് നിന്നും പുറത്താക്കും എന്നും നമ്മുടെ സ്ഥാന സ്ഥാനക്കയറ്റത്തിനു പകരം ജോലിയിലെ സ്ഥാനം സ്ഥാനം കുറയ്ക്കുമെന്നും എന്നും അവര് എന്നെ അവര് ഭീഷണിപ്പെടുത്തി എന്നാല് അതൊന്നും വക വയ്ക്കാതെ ഞാന് കിട്ടുന്ന സമയത്തെല്ലാം പഠിച്ചു മാത്രമല്ല ഇതൊരു ഇതൊരു സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ വളരേയധികം എന്നെ വളരെയധികം എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ഇതെല്ലാം പുറത്ത് പറയാന് പറ്റാതെ ഞാന് വലയുകയും ആയിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ പരീക്ഷയ്ക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് പോയി എന്നാല് വേറൊരു പ്രശ്നം വന്നത് ആ പരീക്ഷാ ദിവസം എനിക്ക് വയ്യാതെ ആവുകയാണ് ഉണ്ടായത് അതെനിക്ക് പനി പിടിക്കുകയും എക്സാമിന് പോകാന് പറ്റാത്ത സ്ഥിതി ആവുകയും ചെയ്തു ആ സമയത്ത് എനിക്ക് എക്സാമിന് നല്ല മാര്ക്ക് കിട്ടുമെന്ന പ്രതീക്ഷയില് ആയിരുന്നു ഞാന് പഠിച്ചതായിരുന്നു എന്നാല് വിധി വൈപര്യസത്താല് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോള് എക്സാം എക്സാമിന് പനിയായി പോവാതിരിക്കുമ്പോള് ആ ദിവസം ആ എക്സാം മാറ്റിയതായും മാറ്റിയതായും ശ്രദ്ധയില്പ്പെട്ടു ആ എക്സാം മാറ്റുകയും വേറെ തീയതി പുതുക്കിയ തീയതി അറിയിക്കുകയും ചെയ്തു അന്ന് എനിക്ക് വളരെ സന്തോഷ സന്തോഷമായിരുന്നു പഠിക്കാന് സമയവും കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പുതിയ എക്സാമിനായി ഞാന് തയാറെടുക്കുകയും ആ എക്സാം നല്ല രീതിയില് എഴുതാന് ശ്രമിക്കുകയും ചെയ്തു ആ എക്സാം നല്ല രീതിയില് ഞാൻ അവസാനിപ്പിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു ഇത് മാത്രമല്ല എന്റെ പ്രയത്നം കൊണ്ടു തന്നെ ഇതേ സ്ഥാനത്ത് തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് പോവുകയും ആ കമ്പനിയില് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തിരുന്നു ആ കമ്പനി ആ കം ആ കം ആ കമ്പനിയില് ഈ ഇതേ മേലധികാരി വരികയും എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാല് എന്നെ സപ്പോര്ട്ട് ചെയ്യാന് അവിടെ കുറേ ആളുകള് ഉണ്ടായിരുന്നത് കൊണ്ടു ഞാൻ അത് പരാതി നല്കുകയും അവരെ അന്ന് അപ്പോൾ തന്നെ പുറത്താ പുറത്താക്കുകയും ചെയ്തിരുന്നു തെളിവ് സഹിതം ഞാന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതാണ് എന്റെ ജീവിതത്തില് ഉണ്ടായ വെല്ലുവിളി ആയിരുന്ന സംഭവം ഞാന് നേരിട്ട നേരിട്ട ഒരു രീതിയും